ഏറ്റവും അഭിമാനകരമായ പല നിമിഷങ്ങളും ഈ ഒരു ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ആദ്യം പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു അച്ഛൻ അമ്മേനെ കിട്ടി അവരുടെ മകളായി വളർന്നു എന്നുള്ളതാണ് ആദ്യത്തെ പിന്നീട് വളർന്ന് പഠിച്ചുവരുന്ന സമയത്ത് എൻ്റെ പഠനകാലങ്ങളിലും നല്ല എനിക്ക് ഗുരുക്കളെ കിട്ടി നന്നായി പഠിക്കാൻ പറ്റി ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുള്ള നല്ല നിമിഷങ്ങളാണ് അതു പോലെ തന്നെ പഠിച്ച് വളർന്നു വരുന്ന സമയത്ത് അച്ഛൻ അമ്മയുടെ അനുവാദത്തോട് കൂടി അവർ കണ്ടെത്തിയ ഒരു പയ്യനെ കല്യാണം കഴിച്ചു അതും നമ്മടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് കല്യാണം എന്ന് പറയുന്നത് നല്ലൊരു ഭർത്താവിനെ കിട്ടി പിന്നീട് ജീവിതത്തിൽ പറയുകയാണെങ്കിൽ നാം ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതു പോലെയുള്ള രണ്ട് പൊന്നു മക്കളെ കിട്ടിയെനിക്ക് പിന്നെ അതു പോലെ തന്നെയാണ് എൻ്റെ ജോലിയെ കാര്യത്തിലാണെങ്കിലും കല്യാണത്തിന് ശേഷം എനിക്ക് നന്നായി പഠിക്കാൻ പറ്റി പിന്നീടും ഞാൻ തുടർന്നു പഠിച്ചു പഠിച്ച് ഞാൻ നല്ലൊരു ജോലി നേടി അതും നല്ലൊരു നിമിഷമായിരുന്നു ജോലി നേടുക എന്നുള്ളതെന്നു പറഞ്ഞാൽ എന്നെ ഒരു ടീച്ചറാക്കി എടുക്കാനെനിക്ക് പറ്റി പഠിച്ച് ഞാനൊരു ടീച്ചറായി അതൊരു നല്ല നിമിഷമാണ് പിന്നീടുള്ള ജീവിതത്തിലുള്ള എല്ലാ അനുഭവങ്ങളും വളരെ നല്ലൊരു അനുഭവമാണ് കാരണം എന്ന് വച്ചാൽ നമ്മളൊരു ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന അഭിനന്ദനങ്ങൾ എന്നു പറയുന്നത് വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നുവച്ചാൽ നമ്മൾ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് കുട്ടികളിൽ നിന്നുള്ള ആ ഒരു സന്തോഷമായിട്ടുള്ള വാക്കുകളാകട്ടെ അല്ലെങ്കിൽ മാനേജ്മെൻ്റിൽ നിന്നുള്ള ആ ഒരു അഭിമാനകരമായിട്ടുള്ള വാക്കുകളാവട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത അഭിമാനമുള്ള കാര്യങ്ങളാണ് അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്ലസ് ടു ക്ലാസ് അതായത് പന്ത്രണ്ടാം ക്ലാസിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പം നമ്മൾ സ്കൂളിൽ മാനേജ്മെൻറ്റ് സ്കൂൾ ആയതു കൊണ്ട് തന്നെ അവിടെ നമുക്ക് എന്താണ് സ്കൂളിൽ നിന്നും പറയാറുണ്ട് എല്ലാ കുട്ടികളും പാസാക്കി എടുക്കണം അല്ലെങ്കിൽ അവർ ഇത്ര ഗ്രേഡ് എടുക്കണം എ പ്ലസ് എടുക്കണം അല്ലെങ്കിൽ അവർ ഇത്ര മാർക്കെടുക്കണം എന്ന രീതിയിൽ പറയാറുണ്ട് ആ പറയുന്ന സമയത്ത് അവര് തന്നിട്ടുള്ള ആ ഒരു ജോലി നല്ല രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റി ആ ചെയ്തതു കൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ നിന്നും ഒരു അവാർഡ് നേടാൻ പറ്റി സ്വർണ നാണയം കൂടി എനിക്ക് നേടാൻ പറ്റി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനമുള്ള ഒരു നിമിഷമായിരുന്നു സ്കൂൾ മാനേജ്മെൻറ്റിൽ നിന്ന് എനിക്കൊരു സ്വർണ്ണ നാണയം ബഹുമാനമായി കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമായിരുന്നു അപ്പം ആ ഒരു നല്ലൊരു നിമിഷം എൻ്റെ ജീവിതത്തിലുണ്ടായി അതു പോലെ തന്നെ പിന്നീട് കുട്ടികളെ പഠിപ്പിച്ചുവരുന്ന സമയത്ത് ഒരോ വർഷം കഴിയുന്തോറും കുട്ടികളിൽ നിന്നും കിട്ടുന്ന അവർ പറയുന്ന നമ്മളെ പറ്റി അവർ പറയുന്ന നല്ല നല്ല വാക്കുകളുണ്ടാവും എനിക്കത് കേൾക്കുന്ന സമയത്ത് അതായത് വർഷാവസാനം സ്കൂളിൻ്റെ ഒരു അക്കാഡമിക്ക് ഇയർ എൻ്റ ആവുന്ന സമയത്ത് ആ വർഷാവസാനത്തിൽ അവർ പറയുന്ന ഓരോ വാക്കുകളും എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ഇത്രയും വയസ്സാവുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ ഈ സ്കൂൾ ജീവിതത്തിൽ എനിക്ക് നല്ല നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് വച്ചാൽ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് വല്ലാത്ത സന്തോഷമാണ് അവർ പറയുന്ന ഓരോ വാക്കുകളും എന്താണ് വല്ലാത്ത ഞാൻ ഇങ്ങനെയാണോ എന്ന് എന്നെ ചിന്തിപ്പിച്ചു പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്നെ വല്ലാതെ സന്തോഷിച്ച നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ളത് പിന്നെ അതു പോലെ തന്നെ എനിക്ക് സ്കൂളിൽ നിന്നും ഒരു തവണ ഗോൾഡൻ അവാർഡാണെങ്കിൽ പിന്നീട് അടുത്ത നെക്സ്റ്റ് ഒരു അക്കാദമിക് ഇയറിൽ എനിക്ക് ക്യാഷ് അവാർഡ് കൂടി നേടാന് പറ്റീ മുമൻറ്റോ നേടാൻ പറ്റി ഇതൊക്കെ വല്ലാത്ത എന്താണ് അഭിമാന നിമിഷമായിട്ടുള്ള സമയമായിരുന്നു നമ്മൾ പഠിച്ച് വലുതായി ജോലി നേടി ഇങ്ങനെയൊക്കെയാവും എന്ന കാര്യം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അപ്പം പെട്ടെന്ന് നമ്മളെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വല്ലാതെ സന്തോഷിപ്പിച്ചു ഞങ്ങളെ ആ കാര്യങ്ങളെല്ലം കേൾക്കാനും മാനേജ്മെൻറ്റിൻ്റെ രീതിയിലുള്ളതിന് എന്താണ് പറയുക അവർ അഭിനന്ദിച്ച് നമ്മളെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്തുള്ള ആ ഒരു സന്തോഷവും അതു കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളിൽ നിന്നു കിട്ടുന്ന എന്താണ് സന്തോഷവും ഇതൊക്കെ നമ്മൾ എന്താണ് വല്ലാതെ സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു അതേ പോലെ തന്നെയാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മറ്റൊരു അഭിമാന നിമിഷം എന്നു പറയുന്നത് നമ്മുടെ കുട്ടികളുടെ നേട്ടമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് രണ്ട് പൊന്മക്കളെയാണ് തന്നിട്ടുള്ളത് ഒന്ന് ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയും അതായിരുന്നു എൻ്റെ ആഗ്രഹവും അതു പോലെ തന്നെ ദൈവം അനുഗ്രഹിച്ചെനിക്ക് തന്നിട്ടുള്ളതാണ് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും പിന്നീട് എനിക്കുള്ള സന്തോഷമെന്നു പറയുന്നത് അവരുടെ പഠനം അവരുടെ നേട്ടം ഇതൊക്കെയാണ് എൻ്റെ സന്തോഷമെന്നു പറയുന്നത് അവരുടെ പഠന രീതിയിൽ വളരെ സന്തോഷവതിയാണ് ഞാൻ രണ്ടു മക്കളും സ്കൂളിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് അവരുടെ ഓരോരോ കാര്യങ്ങളിൽ അവർക്കുള്ള മറ്റ് കഴിവുകൾ എന്തൊക്കെയാണ് അതിലൊക്കെ അവർ മുന്നോട്ട് നിൽക്കാറുണ്ട് അതിൽ ചെലവിടുക അതിനെ എന്താണ് സ്കൂളിലെ ഏതൊരു പ്രോഗ്രാമിന് അവർ പങ്കെടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെയെന്താണ് അവർ സ്റ്റേജിൽ കയറി കളിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയ കുട്ടി എന്നു പറയുന്നത് പ്രായായിട്ടുള്ളവർ എൽ കെ ജി യിലാണ് പഠിക്കുന്നത് പക്ഷേ ആ സമയം എന്ന് പറയുന്നത് അവൾ എൽ കെ ജിയിലോ ഒന്ന് ഇപ്പോൾ യു കെ ജിയിലെക്കെത്തി പക്ഷേ അവൾ ആ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്ന സമയം അല്ലെങ്കിൽ ടീച്ചേഴ്സ് വിളിച്ചവരെ നല്ല കാര്യങ്ങൾ പറയുന്ന സമയം ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള അഭിമാനമായിട്ടുള്ള ഒരു നിമിഷമാണ് അപ്പോൾ മോൾ കഴിഞ്ഞ ദിവസം മോളുടെ ഡാൻസുണ്ടായിരുന്നു സ്കൂളിൽ നന്നായി മേക്കപ്പ് ചെയ്തു അവർ നല്ല ഡ്രസ്സിംഗ് ആയിരുന്നു അവരുടെ ഡാൻസ് കാണുന്ന നിമിഷത്തിൽ ഞാൻ വല്ലാതെ സന്തോഷിച്ചു നമ്മളൊരു രക്ഷിതാവെന്ന രീതിയിൽ നമുക്ക് ഇതു പോലുള്ള നിമിഷങ്ങൾ കിട്ടിയപ്പോൾ നമ്മൾ അതിൽ വല്ലാതെ സന്തോഷിപ്പിക്കും നമ്മളെ അച്ഛനെ അമ്മയോടും വലിയ ഒരാഗ്രഹമാണ് അല്ലെങ്കിൽ വലിയ ഒരു അഭിമാനമാണ് നമ്മുടെ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ നേട്ടമാണ് നമ്മളുടെ സന്തോഷം എന്ന് പറയാം എൻ്റെ അച്ഛൻ്റേയും അമ്മയുടേയും സന്തോഷമായിരുന്നു ഞാനെന്നു പറയുന്നത് അതേ പോലെ തന്നെയാണ് ഇന്നിപ്പോൾ എൻ്റെ കുട്ടികൾ വളർന്നു വരുന്നുണ്ട് അവരിലുള്ള ഓരോരോ നേട്ടവും കാര്യങ്ങളുമാണ് എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലൊരു വലിയ ഒരു അഭിമാനപരമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത് ഒന്ന് സ്കൂളിൽ നിന്ന് കിട്ടിയ എനിക്കുള്ള നേട്ടം തന്നെയാണ് അതായത് ഞാൻ ഗോൾഡൻ അവാർഡും അതേ പോലെ തന്നെ ക്യാഷ് അവാർഡ് ഈ രണ്ട് അവാർഡുകളും സ്കൂളിൽ നിന്ന് നേടി അതാണ് ഏറ്റവും നല്ലൊരു നിമിഷം എന്നു പറയുന്നത് അതേ പോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഓരോ സ്റ്റേജിൽ അതായത് ഓരോ വയസ്സിൽ നമുക്കുണ്ടായിരുന്ന ഓരോ നേട്ടങ്ങളുണ്ട് അല്ലേ അതായത് ചെറിയ ഏജിലുള്ള എൻ്റെ പഠനവും പിന്നീടുള്ള കല്യാണമാവട്ടെ മക്കളാവാട്ടെ മക്കളിലുള്ള നേട്ടങ്ങളാവാട്ടെ ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ എന്നു പറയുന്നത് ഈ എല്ലാ നിമിഷങ്ങളിലും ഞാൻ ഏറ്റവും വളരെ സന്തോഷിതയാണ് അതു കൊണ്ട് തന്നെ ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുന്നു ഇതു പോലുള്ള നിമിഷങ്ങളായിരിക്കട്ടെ എന്നും നമ്മുടെ ജീവിതത്തിൽ വരേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാ സന്തോഷവും നൽകിയ ഭഗവാനോട് ഈ ഒരു നിമിഷത്തിൽ ഞാൻ നന്ദി പറയുകയാണ് അപ്പോൾ ഇനിയും എനിക്ക് മുന്നിൽ ഇതുപോലെയുള്ള പല അവസരങ്ങൾ ഉണ്ടാവട്ടെ അതുകൊണ്ട് ഞാൻ അഭിമാനിക്കാൻ പറ്റട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നിരുന്നാലും എൻ്റെ ഏറ്റവും വലിയ അനുഭവങ്ങൾ ഞാൻ ഇവിടെ പങ്കെടുത്ത് പറയുന്നതിൽ സന്തോഷിക്കുക